ചിത്രരചനയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് ഒരു മൂന്ന് വയസ്സ് ആകുമ്പം തൊട്ടേ നമ്മൾ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനുള്ള അവസരം കൊടുക്കേണ്ടതാണ് നമ്മൾ മൂന്നു വയസ്സ് തൊട്ടേ ചിത്രത്തിൽ ചിത്രങ്ങൾ വരച്ച് അവർക്ക് ഒരു കലാവിരുന്ന് സൃഷ്ടിക്കേണ്ടതാണ്